ഓ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതിയില് മുൻഗണന നൽകുന്ന ഒരു വിദ്യാഭ്യാസമാണ് കാരണം നമ്മുടെ കേരളത്തില് ഒരുപാട് പഠിച്ചവര് അതായത് നല്ല നിലയിൽ എത്തിയവരൊക്കെ ഒരുപാട് ഉണ്ട് കാരണം

അതായത് ആർക്കിടെക്ചറും അങ്ങനത്തെ പല രീതിയിലുള്ള എഞ്ചിനിയേഴ്സും പല രീതിയിലുള്ള അതായത് ജോലിയെടുക്കുന്നവരൊക്കെ ഒരുപാട് മലയാളീസ് ഉണ്ട് അപ്പോൾ അവർക്ക് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കാഴ്ച്ച വെച്ചിട്ടാണ് അവിടെ ഒക്കെ പോയിട്ട് ജോലിക്ക് നിൽക്കുന്നത് ഇപ്പോൾ അവിടെ അതായത് ബാംഗ്ലൂർ പോലെയുള്ള ഒരു സ്ഥലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം നല്ല രീതിയില് വലിയൊരു സിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ഒരു ജോലിയും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടും എന്നാണ് അപ്പ നല്ല രീതിയിലുള്ള മികച്ച നിലവാരം പുലർത്തിയത് കൊണ്ടാണ് അവര് നല്ല രീതിയില് ഇപ്പോൾ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടു ഉള്ളത് ഇപ്പം നല്ല രീതിയിലുള്ള ഉത്തരവാദിത്തത്തോടെയാണ് അവര് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത്